മേ ഐ കം ഇൻ ആ അതെ ഇന്റർവ്യൂവിന് വന്നതാണ് മേഡം

എൻ്റെ പേര് കാസിം എന്നാണ് ഞാൻ രാജധാനി അത് പാലക്കാട് ആ ഞാൻ ആ ഞാൻ മൂന്ന് കൊല്ലം ഇൻഫോസിസിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിരുന്നു

ആ ചെയ്തിട്ടുണ്ട് മേഡം അതു ഞാൻ ഐ ബുള്ളിങ്ങ് റിമൈൻഡർ എന്നൊരു ഇത് ചെയ്തിട്ടുണ്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒന്നേ ചെയ്തിട്ടുള്ളു ഇനിയിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കാം അല്ല നിങ്ങളല്ലേ ജോബിനെക്കുറിച്ച് പറയേണ്ടത് ഞാൻ വേക്കൻസി വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വന്നതാണ്

ആ എനിക്ക് ഓക്കെയാണ് മാഡം സാലറി എന്താണ് മാഡം ഫിഫ്റ്റീനോ അതോ ഫിഫ്റ്റിയോ മാഡം അതിച്ചിരി കുറഞ്ഞു പോയില്ലേ ആ ഓക്കെ മാഡം അല്ല ഞാൻ മുമ്പ് ജോലി ചെയ്ത അവിടെ സ്റ്റാർട്ടിങ്ങ് സാലറി തന്നെ ഫോട്ടി കെയാണ് അല്ല ഞാൻ മുൻമ്പ് ജോലി ചെയ്ത സ്ഥലത്ത് എനിക്ക് സ്റ്റാർട്ടിങ്ങ് സാലറി തന്നെ ഫോട്ടി കെയായിരുന്നു എന്ന് അല്ല ഒരു ചേയ്ഞ്ചിനു വേണ്ടി വന്നതാണ്

ആ ഓക്കെയാണ് ആ ഓക്കെ മാഡം

കമ്പനി എവിടെയാണ് മാഡം ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനി ആ ഓക്കെ മാഡം ആ അപ്പോൾ അടുത്ത് തന്നെയാണ് ആ പാലക്കാടിൽ തന്നെയാണ് വീട് നൈറ്റ് ഷിഫ്റ്റ് ആ കുഴപ്പമില്ല ഓക്കെ എനിക്ക് ഏത് ഷിഫ്റ്റാണെങ്കിലും ഓക്കെ മാഡം നൈറ്റ് ഷിഫ്റ്റാകുമ്പോൾ എക്സ്ട്രാ സ്റ്റയിഫെന്റ് കിട്ടുമോ ആ ഓക്കെ മാഡം വർക്കിംഗ് അവേഴ്സ് എത്രയാണ് മാഡം ആ ഫുഡൊക്കെ ഇവിടെത്തന്നെ പ്രൊവൈഡ് ചെയ്യുമോ അതോ പുറത്തുനിന്ന് കഴിക്കണോ ആ ഓക്കെ അത് ഫ്രീയായിട്ടില്ല അല്ലേ ആ ഓക്കെ ഓക്കെ മാഡം അപ്പോൾ ഞാൻ എനിക്കീ കോൾ ലെറ്റർ അയച്ചാൽ മതി ഞാനപ്പോൾ വന്ന് ജോയിൻ ചെയ്യാം മാഡത്തിൻ്റെ പേരെന്താണ്

ഓക്കെ മാഡം